ഈ അടുത്തകാലത്ത് നമ്മുടെ സമ്പത്ത് മേഖല അതായത് കൊറോണ വന്നതിനുശേഷം നമ്മുടെ സമ്പത്ത് മേഖല കൊറോണക്ക് മുമ്പേകാട്ടിലും അതായത് കൊറോണ വരുണെ മുമ്പേകാട്ടിലും നല്ല രീതിക്കാണ് വളർന്നുകൊണ്ടിരിക്കുന്നത് അതിൽ നമ്മള് മെയിൻ ആയിട്ട് നമ്മുടെ ഇൻറർനെറ്റ് സേവനങ്ങൾ അല്ലെങ്കിൽ ഡിജിറ്റൽ പെയ്മെൻറ് അങ്ങനത്തെ കാര്യങ്ങൾ അതിലൊക്കെ നമുക്ക് മുഖ്യമായ ഒരു പങ്കുവഹിക്കുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം എന്ന് പറയുമ്പോൽ നമ്മുടെ സേവന മേഖല അതിനും വലിയൊരു പങ്കുവഹിക്കാൻ ഉണ്ട് അതില് പിന്നെ നമ്മുടെ ടാക്സിൻ്റെ ആ ജിഎസ്ടി കൊണ്ടുവന്നത് എന്താ പറയാ കൃത്യമായിട്ടുള്ള നമ്മുടെ സമ്പത്ത് വ്യവസ്ഥക്ക് ഒരു അടിസ്ഥാനമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും എന്താ വെച്ചുകഴിഞ്ഞാ ജിഎസ്ടി അതിൻറെ ഒരു ആ സംഭവം വന്നതോടുകൂടി നമ്മുടെ എല്ലാ മിക്ക ആൾക്കാരും കൃത്യമായി ടാക്സ് അടക്കാനും അതോ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സമ്പത്ത് വ്യവസ്ഥയെ കൃത്യമായി താങ്ങി നിർത്താൻ ഉള്ള ഒരു അവസ്ഥ വിശേഷം ഉണ്ടായിട്ടുണ്ട് പിന്നെ നമ്മൾ നോക്കാണെന്ന് പറയുമ്പോൾ നമ്മുടെ എക്സ്പോർട്ടിങ് എക്സ്പോർട്ടിങ് മേഖല കുറച്ചും കൂടെ മെച്ചപ്പെട്ടു അതുപോലെ പ്രതിരോധം പ്രതിരോധ വകുപ്പിൽ നമുക്ക് നല്ല രീതിക്കുള്ള ഒരു മാറ്റം കണക്കാക്കാൻ പറ്റുന്നുണ്ട് ആ സാ ആ ഏരിയയിൽ എന്താ പറയാ നമുക്ക് ആയുധങ്ങള് കയറ്റി വിടാൻ പറ്റുന്നുണ്ട് അങ്ങനെ നമുക്ക് നല്ല രീതിയില് പൈസ സമ്പാദിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ നമ്മൾ നോക്കാമെന്നു പറയുമ്പോൾ നമ്മുടെ സ കണ്ടുപിടുത്തങ്ങൾ നല്ല രീതിക്കുള്ള പുതിയ പുതിയ ആവി കണ്ടുപിടുത്തങ്ങൾ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ടെക്നോളജി വിറ്റ് അതിൻ്റെ തായ പ്രൊഫിറ്റും കാര്യങ്ങളും ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് പിന്നെ നമ്മുടെ വാഹനം മേഖല പിന്നെ ഫോണിൻ്റെ അതായത് മുമ്പ് നമ്മള് ഫോണുകൾ കമ്പനികള് പുറത്തു നിന്ന് ഉണ്ടാക്കി ഇവിടെ വന്നിട്ട് വിൽക്കായിരുന്നു ഇപ്പോൾ നേരെമറിച്ച് ഇവിടെ ഉണ്ടാക്കി പുറത്തുപോയി വിക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടത്തെ ആ ടാക്സ് ഒഴിവായി കിട്ടും പിന്നെ നമ്മള് നോക്കാണെന്ന് പറയുമ്പോ നമ്മുടെ ആ പിന്നെ നമ്മുടെ വാഹനങ്ങളുടെ മേഖല കൂടുതലായിട്ട് ഇപ്പോ വാഹനങ്ങളുടെ കമ്പനികൾ നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോ നമുക്ക് അതിലും നല്ല രീതിക്കുള്ള ലാഭം പിന്നെ നമ്മുടെ കാർഷികമേഖല മെയിൻ ആയിട്ട് നോക്കണത് പറയുമ്പോൽ കാർഷിക ഉൽപ്പന്നങ്ങൾ നല്ല രീതിക്ക് നമുക്ക് വർദ്ധിക്കാൻ പറ്റിയിട്ടുണ്ട് കൂടുതൽ ആയിട്ടുള്ള ഉൽപാദന ശേഷി ഉണ്ടാവുന്നുണ്ട് അപ്പോ അതിൻ്റെ അതിൻ്റെ തായ രീതിയിൽ നമുക്ക് നല്ല വരുമാനം കിട്ടുന്നുണ്ട്